ഹലോ മാം ഇത് ഐ സി ഐ സി ഐ ബാങ്ക് അല്ലേ ഹലോ മാം ഞാൻ വിളിച്ചതേ ഒരു ഒരു കാറിൻ്റെ ലോണെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം ഞാനെടുക്കാൻ പോകുന്ന കാറ് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ബി എം ഡബ്ലു ആണു ഉദ്ദേശിച്ചത് അത്യാവശ്യം എക്സ്പെൻസീവ് വണ്ടിയാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ലോണിനു വേണ്ടി അപേക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് വിളിച്ചന്വേഷിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാരുന്നേ ആനുവൽ ഇൻകം ടെൻ ലാക്സിൻറെ മേലെയുണ്ട് ടെൻ പോയിൻറ് നാല്പതുണ്ട് അപ്പം അതിനനുസരിച്ചിട്ടുള്ള ലോൺ അവിടെ ഉണ്ടാകുമല്ലോ അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് രണ്ടും അല്ല ആ എനിക്കേകദേശം ഒരു ട്വൻറി ഫൈവ് ലാഖ്ക്സിൻ്റടുത്തു വേണ്ടിവരും കാർഷിക വായ്പക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല മാഡം ഞാനൊരു വേറെ ബാങ്കിൽ കാർഷിക വായ്പ്പയിൻറെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ലാന്റിൻ്റെ വച്ചിട്ട് നമുക്ക് ഈ സ്വർണ്ണത്തിൻ്റെ ഗോൾഡ് വച്ചിട്ടുള്ള ലോൺ ഉണ്ടാകുമല്ലോ അപ്പം ഗോൾഡ് ലോണിന് വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യുന്നത് ഏകദേശം ഒരു മുപ്പതു പവൻ്റടുത്തുണ്ട് അപ്പം ഞാനിതിനു മുൻപ് വേറൊരു ബാങ്കിൽ പോയപ്പോൾ ചോദിച്ചപ്പോൾ അവിടെ പലിശ ഇച്ചിരി കൂടുതലാണ് അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വിളിച്ചന്വേഷിച്ചത് അപ്പം അതിൻ്റെ പലിശയും കാര്യങ്ങളൊക്കെ എട്ടു ശതമാനമോ ഓക്കെ അവിടെ അപ്പുറത്തു ബാങ്കിൽ അവിടെ പറഞ്ഞത് പതിനൊന്നു ശതമാനം എന്നായിരുന്നു അത് പേർസണൽ ബാങ്കാണ് അപ്പം ഞാനവിടെ ഇല്ല ഇവിടെയിപ്പോൾ ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ടെൻ്റെ പേരിൽ ഐ സി ഐ സി ബാങ്കിലേ ക്രെഡിറ്റ് കാർഡുണ്ട് അപ്പോൾ അതുകൊണ്ട് വലിയ സീനില്ല

ആ അപ്പോൾ ഈ ഈ ട്വൻറി ലാക്സിന് ആ ഉള്ളതെല്ലാം ചേർത്താലും മതിയല്ലേ

അപ്പോൾ എന്നാൽ ഞാനെന്നാൽ ഇനി വരുന്ന ദിവസം അങ്ങോട്ട് കോൺടാക്ട് ചെയ്താൽ മതിയോ അതോ അല്ലെങ്കിൽ ഡയറക്ട് നേരെ അവിടെപ്പോയി അപ്ലൈ ചെയ്താൽ മതിയോ റിസർവേഷൻ എന്നു പറഞ്ഞാൽ മതി വിളിച്ചിട്ടാണ് വന്നത് എന്നു പറയാം അല്ലേ ഫോട്ടോ ആ പിന്നെ അല്ല വേറെ ഡീറ്റെയിൽസും കാര്യങ്ങളും പേപ്പേഴ്സ് കാര്യങ്ങൾ അങ്ങനെ വല്ലതും മുദ്രപേപ്പർ അങ്ങനെ വല്ലതും വേണ്ട അല്ലേ അതൊന്നും തരേണ്ടാ വേറെ എക്സ്പെൻസും കാര്യങ്ങളൊന്നുമില്ല

ആ അപ്പോൾ താങ്ക് യൂ അതിൻ്റെ വകുപ്പും കൂടി ആ അവിടുത്തെ ഒരു ഉണ്ട് ഓക്കെ വേറെയൊന്നും വേണ്ടിവരില്ല അല്ലെ താങ്ക് യൂ മാഡം അപ്പോൾ ഞാൻ എത്തിയേക്കാം അങ്ങോട്ടേക്ക് വന്നേക്കാം വരുമ്പോൾ ഞാൻ പറഞ്ഞേക്കാം വിളിച്ചിട്ടാണ് വന്നതെന്ന് താങ്ക് യൂ